ഹലോ ട്രാവൽ ഏജൻസി അല്ലേ ഞാൻ ഇന്നലെ ഞാൻ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് എറണാകുളത്ത് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഓക്കേ ഓക്കേ ആ ഇതുവരെ ക്യാബ് എത്തിയിട്ടില്ല അതിരാവിലെ വരാമെന്ന് പറഞ്ഞതായിരുന്നു പക്ഷേ ഇതുവരെ ക്യാബ് എത്തിയിട്ടില്ല അപ്പം അത് വിളിച്ചിട്ടാണെങ്കിൽ പുള്ളി എടുക്കുന്നുമില്ല ആ ഓക്കേ ഓക്കേ നിങ്ങൾ അതൊന്ന് ട്രാക്ക് ചെയ്തിട്ട് എവിടം വരെ എത്തി എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് എന്നോട് ഒന്ന് പറയണം ഇല്ലെങ്കിൽ ഞങ്ങൾ വേറെ ട്രാവൽ ഏജൻസി ഉണ്ട് നിങ്ങളെ പിന്നെ അറിയാവുന്നത് ആയതുകൊണ്ടാണ് അങ്ങനെ ബുക്ക് ചെയ്തത് പക്ഷേ ആ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കോൾ എടുക്കാണ്ടെ ഒക്കെ വരുന്നത് എന്നാൽ പിന്നെ കോൾ എടുത്തിട്ട് കാര്യം എന്താണെന്നൊരു വാക്ക് പറയാമല്ലോ അവന് അല്ല അത് വളരെ മോശം അല്ലേ നിങ്ങൾ നിങ്ങളുടെ ഒരു നിങ്ങളുടെ എന്താണ് പറയുക നിങ്ങളെ ഭാഗത്ത് നിന്നുള്ള മിസ്റ്റേക്ക് ആണ് നിങ്ങൾ അതൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ഇങ്ങനെയുള്ളവരെയൊക്കെ ഡ്രൈവർ ആയിട്ട് വെച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ ആ അതെ നിങ്ങളുടെ ഇതിനുതന്നെയാണ് പ്രോബ്ലം വരുക ഇപ്പം എനിക്ക് ഉണ്ടായ അനുഭവം ഞാൻ മറ്റൊരാളോട് പങ്ക് വയ്ക്കുമ്പോൾ പുള്ളി പിന്നെ നിങ്ങളെ ആരെയും വിളിക്കില്ല നിങ്ങള ട്രാവൽ ഏജൻസിയും ബുക്ക് ചെയ്യില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഈ കോൾ അറ്റൻഡ് ചെയ്യാനുള്ളൊരു മാനേഴ്സ് പുള്ളി കാണിക്കണം കാരണം നമ്മൾ അതിരാവിലെ വരാം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പുള്ളി ഇതുവരെ എത്തിയിട്ടില്ല വിളിച്ചാലൊന്നും ഫോൺ എടുക്കില്ല കാര്യം എന്താണ് എന്ന് ഒന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു ഇനി ഞങ്ങളിപ്പോൾ വേണമെങ്കിൽ വേറെ വണ്ടിയോ എന്തെങ്കിലും ബുക്ക് ചെയ്തോളാമായിരുന്നു ഇതിപ്പോൾ ഫോൺ എടുക്കാണ്ട് പുള്ളി വന്നു കഴിഞ്ഞാൽ ഇവിട വന്നു നിൽക്കും അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ പോയോ ഇല്ലയോ ഒന്നും അറിയില്ല അതിരാവിലെ വരാം എന്ന് മാത്രം പറഞ്ഞു പക്ഷേ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല നിങ്ങൾ അതൊന്ന് ട്രാക്ക് ചെയ്തിട്ട് എവിടെ എത്തി എന്ന് നോക്കുക ഇല്ലെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾ വേറെ വണ്ടി ബുക്ക് ചെയ്യും പിന്നെ നിങ്ങളെ ട്രാവൽ ഏജൻസീനെ ഞങ്ങൾ എന്ത് ചെയ്യുക ഡീഗ്രേഡ് ചെയ്യും അപ്പോൾ നോക്കിയും കണ്ടും നിങ്ങൾക്ക് ചെയ്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം